ഇപ്പോൾ ഒരു ചിത്രം വരയ്ക്കാവുന്ന സമയത്ത് നമ്മൾ നോക്കുന്നെന്നു വെച്ചാൽ അതിപ്പം നമ്മളൊരു തീം മനസ്സിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇപ്പം അതിനനുസരിച്ച് നമ്മൾ വരയ്ക്കും ഇപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്നു ഗൂഗിളിൽ നോക്കും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ഇതൊക്കെ നോക്കിയിട്ടു കുറേ അതിന് അതിനൊക്കെ ഓരോ വരക്കുമ്പോൾ ഓരോ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു വരപ്പിയ്ക്കും വരയ്ക്കും ഇതു നമ്മുടെ കണ്ടെന്റ് അനുസരിച്ച് സെർച്ച് ചെയ്തു ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് അതിനെ ഓരോ പോയിൻറ്റ് ഓരോ ടച്ച് അങ്ങ് എടുത്തു നോക്കി വരയ്ക്കും പിന്നെ ആദ്യം അതിൻ്റെ ഒരു ഔട്ട് ലൈൻ ജസ്റ്റ് ഒന്നു വരക്കും വരച്ചിട്ട് പിന്നെ നമ്മളതിനു ജസ്റ്റ് ബാക്കിയെല്ലാം കളറൊക്കെ കൊടുത്ത് ഒരു ബോർഷ് ബോൾഡാക്കി വരയ്ക്കണം ആദ്യം ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ വരക്കും അങ്ങനെയാണു വരയ്ക്കുന്നത്